ഞാനൊരു പക്കാ നാട്ടിൻപുറത്തുകാരിയാണ് കാവുങ്കൽ എന്നാണു എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് എൻ്റെ ഗ്രാമമെന്നു വെച്ചുകഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ് എന്താ പറയുക എന്നുവെച്ചാൽ എല്ലാവരും നല്ല ഒത്തൊരുമയാണ് ഗ്രാമത്തിലെ സ്ത്രീകളൊക്ക എല്ലാരും കൂടിയിട്ട് നമ്മളൊരുമിച്ചിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് വലിയൊരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ വലിയൊരു പായ വിരിച്ചു അതിൽ നമ്മളാ കിട്ടുന്ന ഈ ചുവന്ന മുളകില്ലേ അതൊക്കെ വിരിച്ചു ഉണങ്ങാനിടും നല്ല പൊരി വെയിലത്തു അതൊക്കെ ഉണക്കി അതൊക്കെ നമ്മൾ ഒരുമിച്ചു കൊണ്ട് പോയി നമ്മുടെ വീടിൻ്റെയടുത്തൊരു മില്ലുണ്ട് ഈ പൊടിയൊക്കെ പൊടിപ്പിക്കുന്ന ഒരു മില്ലുണ്ട് ആ മില്ലിൽ കൊണ്ട് പോയി മുളക് പൊടിച്ച് അത് ഇങ്ങനെ നമ്മളെന്തു ചെയും എല്ലാവരുംകൂടി വീതിച്ചെടുക്കും ഓരോ വീട്ടുകാരും കൂടി വീതിച്ചെടുക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ ഞങ്ങൾക്ക് റേഷൻ പീടികയിൽ നിന്നും അതുപോലെ തന്നെ നീതി സ്റ്റോറിൽ നിന്നൊക്ക മാവേലി സ്റ്റോറിൽ നിന്നൊക്ക നമുക്കീ മുളക് വാങ്ങിക്കാൻ കിട്ടും ഈ മുളക് വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അതിപ്പോൾ ലീവുള്ള ഒരു ദിവസം ജോലിക്കു പോകുന്ന ആൾക്കാരുണ്ട് ജോലിക്കു പോകാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി എല്ലാ വീട്ടിലെയും സ്ത്രീകളും കൂടിയിട്ട് എന്തു ചെയ്യും ച്ചാ ഒരു ഞായറാഴ്ച്ച ഒഴിവു ദിവസം ഈ മുളകിനെ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കും അതൊരു വലിയ ഗ്രൗണ്ടാണ് നമ്മളുടെ നമ്മുടെ ഒത്തൊരുമയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ആ മുളകിങ്ങനെ വെയിലത്തിട്ടൊണക്കും എന്നിട്ട് അത് ഒരുമിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഞായറാഴ്ച്ച മില്ല് ഓപ്പണായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാളെ ഒരാളെയോ അല്ലെങ്കിൽ രണ്ടാളെയോ ഏൽപ്പിക്കും അങ്ങനെ അവരത് കൊണ്ട് പോയിട്ട് ഇത് പൊടിച്ച് മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് അത് എല്ലാവർക്കും ഇപ്പോൾ പത്തു വീട്ടുകാർ ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് പത്തു ഭാഗം ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക അതു പോലെ തന്നെ ഈ പൊടിക്കുന്ന പൈസയും എല്ലാവരും കൂടി ഷെയറിട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്